കർഷക ആത്മഹത്യ ഈ കാലഘട്ടത്തിൽ വളരെ അധികം കൂടുതലാണ് അതായത് കൃഷിനാശങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഉത്പാദിപ്പിച്ച് വിൽക്കുന്ന സർക്കാർ ഏറ്റെടുക്കുന്ന നെല്ലിനായിക്കോട്ടെ സംവരണം ഉണ്ടെങ്കിലും അവർക്ക് കർഷകർക്ക് ആവശ്യമായ സമയത്ത് അതിനുള്ള വില നൽകുന്നില്ല കർഷകരുടെ കയ്യിൽ നിന്ന് നെല്ല് സംഭരിക്കും ആറു മാസം ഒരു വർഷം കഴിഞ്ഞിട്ടും തിരിച്ച് സർക്കാർ കർഷകന് പൈസ കൊടുക്കാത്തതിന്റെ വിഷമത്തിലാണ് അതായത് ഒരു പ്രാവശ്യത്തെ കൃഷിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് വിറ്റ് ഇട്ട് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വേണം അവ കർഷകന് അടുത്ത പ്രാവശ്യത്തെ വിള ഇറക്കാനായിട്ട് അതായത് നെല്ല് വീണ്ടും കൃഷി ചെയ്യാനായിട്ട് ഈ പൈസയാണ് അവൻ ഉപയോഗിക്കുന്നത് പിന്നെ മാത്രമല്ല കൃഷി പ്രകൃതിയുടെ ക്ഷോഭം മൂലം ഒന്നുകിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വരൾച്ച എന്നീ കാലാവസ്ഥകളുണ്ടാവുമ്പോൾ കാലാവസ്ഥകളിൽ വരുന്ന വ്യതിയാനങ്ങൾ കാരണം കർഷകർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു അതുകൊണ്ട് കർഷകർ എടുത്ത ബാങ്കിൽ നിന്നെടുത്ത ലോണുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വാങ്ങിച്ച വായ്പകളോ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കർഷക കർഷകരുടെ ആത്മഹത്യ കൂടുന്നത് ഇതിന് സർക്കാർ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് എങ്കിലും ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല അവർ വാഗ്ദാനങ്ങൾ സർക്കാർ എല്ലാം വാഗ്ദാനങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നമ്മുടെ കർഷകരുടെ ആത്മഹത്യയെ ഇല്ലാതാക്കാൻ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും